ഹലോ എൻ്റെ പേര് നന്ദഗോപാൽ എ ആർ റസ്റ്റോറന്റ്സ് അല്ലേ അപ്പോൾ എനിക്ക് വൈകീട്ട് ഫുഡ് ഒന്ന് വേണമായിരുന്നു ഡെലിവറി ഇന്ന് ഓർഡർ ചെയ്യാൻ അപ്പോൾ എന്തൊക്കെയാ ഉള്ളത് അവിടെ സിംപിൾസ് ആയിട്ട് എന്തെങ്കിലും മതി സിംപിളായിട്ട് എന്തെങ്കിലും മതി വൈകീട്ട് കഴിക്കാനാണ് അപ്പോൾ ആ യാ ആ എന്തെങ്കിലും മതി ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ സിംപിളായിട്ട് എന്തെങ്കിലും മതി അല്ല ഹെവി ഫുഡ്സ് ഒന്നും വേണ്ട ഒരു ബിരിയാണി മതി ഒരു ബിരിയാണി ഒരു പെപ്സി കൂടെ പെപ്സി വേണ്ട ഒരു ബിരിയാണി മാത്രം മതി ഓക്കെ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു ആ വൈകീട്ടത്തേക്ക് ആ സ്ഥലം സഥലം ഇവിടെ കുഴിമണ്ണാണ് കുഴിമണ്ണം ഉള്ളിൽ നിന്ന് കുറച്ച് കുറച്ച് ഉള്ളിലോട്ട് വരണം പുത്തനൂർ എന്ന് പറയും ലൊക്കേഷൻസ് ആ അതെ അതെ ഓക്കെ ഓക്കെ അപ്പോൾ യാ അപ്പോൾ യാ ഈ കുഴിമണ്ണത്തിന്ന് ഉള്ളിലോട്ട് പുത്തനൂർ എന്ന് പറയും ഞാൻ ലൊക്കേഷൻസ് വേണമെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യാം നമ്പർ ഉണ്ടെങ്കിൽ ഓക്കെ യാ അപ്പോൾ ബിരിയാണി മാത്രം മതി വേറെ ഒന്നും വേണ്ട ആ ഓക്കെ മതി ഓക്കെയാണ് ഓക്കെയാണ് ഓക്കെ ശരി